തോട്ടത്തില് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെടിയുടെ കാര്യം നോക്കുകയാണെന്ന് പറയുകയാണെങ്കില് കുറേ കുറേ അതിനായിട്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് വിത്തു മുളപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ വിത്ത് മുളപ്പിച്ചിട്ട് ചെറിയ ചെടികളായിട്ട് ഉണ്ടാക്കാം വിത്ത് ഇപ്പോൾ നമുക്ക് കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ വേറെ തോട്ടത്തിൽ നിന്നും അടുത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കാരുടെകയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പത്രത്തിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ ഓർഡർ ചെയ്തു കഴിഞ്ഞാ കുറേ ഫാമുകളുടെ തോട്ടങ്ങളുണ്ട് അപ്പോൾ അവര് വിത്ത് കൊറിയർ ആയിട്ട് അയച്ചു തരും ഇപ്പോൾ നമ്മള് നല്ല നല്ല മെച്ചപ്പെട്ടത് കൃഷിഭവനിൽ നിന്നൊക്കെ മേടിക്കുന്നത് കുഴപ്പമില്ലാത്തതാണ് പിന്നെ സാധാരണ നമ്മള് വിത്ത് വിൽക്കുന്ന കൃഷി ഉൽപാദന കേന്ദ്രങ്ങൾ ഒക്കെയുണ്ട് കുറേ പാലക്കാട് ജില്ലയിൽ നോക്കണ പറയുമ്പോൾ രണ്ടു മൂന്നു സ്ഥലത്ത് അതിൻ്റെ കൃഷി വിത്ത് ഉൽപാദന കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മള് സാധാരണ അവിടുന്നൊക്കെ മേടിക്കാറുണ്ട് പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവണ സാധനത്തിൽ നിന്ന് അത് ഉല്പാദിപ്പിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ അത് കൃത്യമായിട്ട് ഉണക്കി കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ വച്ച് കഴിഞ്ഞാൽ